ഹലോ മേഡം ഇവിടെ രാവിലെ ബ്രേക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ട്

വെജ്ജും നോണുമില്ലേ ആ ആ ഓർഡറ് സ്വീകരിക്കുന്നത് ആണോ ഇവിടെ റൂമ് അങ്ങനെ ഉണ്ടോ ആ ആ ഓർഡറ് ഏ ഞങ്ങൾക്ക് നാളത്തേക്കാണ് ആ നാളെത്തേക്കാണ് അപ്പോൾ ഏ സി റൂമ് തന്നെ വേണം ആ കുഴപ്പമില്ല ആറ് റൂമ് വേണം ആ അത് നോട്ട് ചെയ്തോളൂ അതേപോലെ നാളത്തേയ്ക്ക് ഇഡ്ഡ്ലി ഇഡ്ഡ്ലി ഒരു നൂറെണ്ണം വേണം അതിന് എന്താണ് കറിയുള്ളത് ഗ്രീൻ പീസുണ്ടോ ആ ഗ്രീൻ പീസ് കറിയും എടുത്തോളീൻ പിന്നേ ചപ്പാത്തിയും വേണം ചപ്പാത്തി ഒരു നൂറെണ്ണം എടുത്തോളു അതിന് ചിക്കനായിട്ട് എന്താ ഉള്ളത് കറി ചിക്കൻ കറി ഏതൊക്കെയാണ് ഉള്ളത്

മട്ടനുണ്ടോ ബീഫ് ബീഫുണ്ടല്ലേ എന്നാൽ നൂറ് ചപ്പാത്തിക്ക് അതിനുള്ള ചിക്കൻ കറിയും പിന്നെ ഉഴുന്ന് വടയും എടുക്കണേ ആ പിന്നേ ഉച്ചത്തേക്ക് ബിരിയാണി വേണമായിരുന്നു

അത് നൂറ് തന്നേ വേണം ഫംഗ്ഷൻ നടത്താനുള്ള ഹാൾ ഒക്കെയില്ലേ അവിടെ അ അ അവിടേക്ക് വേണം പിന്നെ ഒരു പത്ത് കിലോൻ്റെ ഒര് കേക്കും ബ്ലാക്ക് ഫോറെസ്റ്റ് തന്നെ ആയിക്കോട്ടെ ആ അതില് അമ്മുക്കുട്ടിന്നൊക്കെ എഴുതിക്കോ ബർത്ഡേ ആണ് അ അപ്പോൾ അവിടെ വിളമ്പാനുള്ള ആൾക്കാരും എല്ലാം വേണം അ അ എല്ലാം നോട്ട് ചെയ്തോളു ഓ ഓക്കെ സാർ ഞങ്ങള് നാളെ വിളിക്കാം ഓക്കെ ഓക്കെ ശരി